ഞാന് ക്യാബ് ബുക്ക് ചെയ്യുമ്പം തന്നെ എത്ര എമൗണ്ട് ആകുമെന്ന് നിങ്ങളോട് നേരിട്ട് ചോദിച്ചതാണ് എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഞാന് പൈസ നേരിട്ട് അടക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പം ഡ്രൈവറ് പറയുന്നു ഞാന് കോഴിക്കോട്ന്ന് പാലക്കാട് വരെ കല്യാണാവശ്യത്തിനാണ് ക്യാബ് ബുക്ക് ചെയ്തത് വരികയും ചെയ്തു എന്നിട്ട് ഇപ്പം ഡ്രൈവറ് പറയുന്നു ആ പൈസ പോര ആയിരം രൂപ എക്സ്ട്രാ തരണം എന്ന് അത് എങ്ങനെയാണ് തരാന് പറ്റുക നിങ്ങൾക്ക് അത് നേരത്തെ പറയാമായിരുന്നു എമൗണ്ട് ആകുമെന്ന് ഞാന് ചോദിച്ചപ്പോൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങള് ആയിരം രൂപ എക്സ്ട്രാ ചോദിക്കുന്നതില് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾക്ക് ആദ്യമേ പറയാന് പാടുണ്ടായിരുന്നല്ലോ എങ്ങനെയാന്ന് അത് തരാന് പറ്റില്ല നിര്വാഹമില്ല ഇനി തരില്ല അങ്ങനെയാണേൽ നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നു ഇത്ര രൂപ കൂടുതലാകുമെന്ന് ആയിരം രൂപയോന്നും തരുന്ന പ്രശ്നേയല്ല നിങ്ങൾക്ക് അത് നേരത്തെ ഞങ്ങളോട് പറയാരുന്നു ഞാന് വിളിച്ച് ക്യാബ് ബുക്ക് ചെയ്യാന് നേരത്ത് ഞാന് ഡീറ്റയില്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് പറയാമായിരുന്നു